ഇന്ത്യയില് ല് വിവിധതരം സംവിധാനങ്ങൾ ഗതാഗത സംവിധാനങ്ങളുണ്ട് ആളുകള് പല രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത് ഇപ്പോള് താഴ്ന്ന തട്ട് മുതൽ ഉയർന്ന തട്ടുവരെയുള്ള ആളുകൾക്ക് അവരുടേതായ സാഹചര്യങ്ങൾക്കും സമ്പത്ത് വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള ഗതാഗത മാർഗങ്ങളാണ് അവര് ഉപയോഗിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ മുച്ചക്ര വാഹനങ്ങൾ നാലു ചക്ര വാഹനങ്ങൾ അങ്ങനെ വിവിധതരം യാത്രാ മാർഗ്ഗങ്ങളുണ്ട് അപ്പോള് സാധാരണ ആളുകൾക്ക് സാധാരണ ആളുകള് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മുതൽ വലിയ വലിയ ആളുകൾ വരെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നമ്മള് നിരന്തരം കാണുന്നതാണ് പക്ഷേ ഇപ്പോള് മെട്രോ പോലുള്ള അതായത് ഗതാഗത സേവനങ്ങൾ അത് സാധാരണ ആളുകൾക്കും എല്ലാ തരം ജോലി ചെയ്യുന്നവർക്കും നിരന്തരം അതായത് ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയില് ഉള്ളതാക്കി തീർക്കണം അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ അത് എല്ലാ മേഖലകളിലും അത് നന്നാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് മെച്ചപ്പെടുത്തേണ്ടത് നമ്മുടെ നമ്മുടെ രാജ്യത്തെ ഓരോ നിയമങ്ങൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതിലൂടെയും പിന്നെ നിയമങ്ങൾ നന്നായി നടപ്പിലാക്കുന്നത് നടപ്പിലാക്കുന്നതിലൂടെയും നമ്മുടെ എല്ലാ തരത്തിലുള്ള ഗതാഗത സേവനങ്ങളും മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്